അങ്ങനെ സംരക്ഷിക്കേണ്ട കലാരൂപങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം തെയ്യം അങ്ങനെ ഹിന്ദൂസിൻ്റെ കലാരൂപങ്ങളൊക്കെ ഇപ്പോൾ കുറേ ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ട് തെയ്യം കഥകളി അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ നമ്മളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടേതാണെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒപ്പന മാർഗ്ഗംകളി അതൊക്കെ ഒരുപാട് നല്ല രസമാണ് ഒപ്പനയാണെങ്കിൽ ഒരു മണവാട്ടി ഒരു കല്യാണത്തിൻ്റെ ഒരു ഫീലാണ് അതുകാണുമ്പത്തന്നെ അങ്ങനത്തെ ഒരു പാട്ടും ഡാൻസും കോസ്റ്റ്യൂമാണെങ്കിലും എല്ലാം നല്ല രസമാണ് കാണാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും സംരക്ഷിക്കപ്പെടേണ്ടതും ഇങ്ങനത്തെയൊക്കെ ഒരു കലാരൂപത്തെയാണ് അല്ലാതിപ്പോൾ ഇപ്പോൾ ഒരുപാട് ഡാൻസുകളാണിപ്പോൾ കലാരൂപത്തിനേക്കാട്ടും ഒരുപാടുള്ളത് കഥകളി തെയ്യം നാടോടി നൃത്തം അങ്ങനത്തെയൊക്കെ ഒരുപാടുണ്ട് അതൊക്കെയിപ്പോൾ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അത് കുറേക്കാലം മുൻപുള്ളതാണ് എന്നാലും നമ്മളിപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഡാൻസുകളോ ക്ലാസിക്കൽ വെസ്റ്റേൺ അങ്ങനത്തെ ഡാൻസിനോടക്കെയാണ് നമുക്ക് കൂടുതലിഷ്ടം എന്നമ്ല് കലാരൂപങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് എന്നാലും കൂടുതലാളുകൾക്കും ഇപ്പോൾ മോഡേൺ പാട്ടുകളും ഡാൻസുകളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം